വയനാട് ജില്ലയില് ലഭ്യമായ പ്രധാന ആരോഗ്യപരിപാലന സൗകര്യങ്ങളും സേവനങ്ങളും ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആശുപത്രികളുണ്ട് ക്ലിനിക്കുകളുണ്ട് അത് ആശുപത്രിയിൽ നിന്നും നമുക്ക് ഫ്രീയായിട്ട് കിട്ടുന്ന ഫാർമസികള് അതായത് ഫാർമസി ഫ്രീയായിട്ട് മരുന്ന് കിട്ടുന്ന ഫാർമസികള് പിന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകൾ ഉണ്ട് ഹെൽത്ത് സെൻ്ററുകള് അതായത് ഹെൽത്ത് സെൻ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അതായത് കുട്ടികൾക്ക് കുത്തിവെപ്പ് എടുക്കാനും അല്ലെങ്കിൽ ഗർഭിണികൾക്ക് കുത്തിവെയ്പ്പ് എടുക്കാനും അങ്ങനത്തെ കാര്യത്തിനൊക്കെ നമുക്ക് പിന്നെ ഹെൽത്ത് സെൻ്ററുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്നു വെച്ചിട്ടുണ്ടെങ്കില് ഏകദേശം ആര് പോയിട്ടുണ്ടെങ്കിലും അവിടെ നമുക്ക് അതായത് പിന്നെ ഫ്രീയായിട്ട് ചികിത്സ ലഭിക്കും അതുതന്നെ വലിയ ഉപകാരമാണ് പാവങ്ങൾക്കൊക്കെ വലിയൊരു ഉപകാരാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോവിഡ് സ കോവിഡ് മഹാമാരിയുടെ സമയത്തൊക്കെ ആശുപത്രികൾ വളരെ നല്ലവണ്ണം പ്രവർത്തിച്ചു കാരണം അതായത് ആശുപത്രികളിൽ നമുക്ക് ഫുഡ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു നമുക്ക് ആശുപത്രി ഫുൾ കോവിഡ് കോവിഡ് രോഗികൾക്ക് മാത്രമായിട്ടുള്ള ഒരു ഇതാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം ആ സമയത്തൊക്കെ ആശുപത്രിയില് ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് ഒക്കെ നല്ല അതായത് നല്ല രീതിയിലായിരുന്നു നല്ല പ്രവർത്തനങ്ങളും ഒക്കെ ആയിരുന്നു പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ വേറെ ഹോസ്പിറ്റലിൽ ഇപ്പം വിനായക വിനായക ഹോസ്പിറ്റലിൽ വൈറ്റിലയിലെ മിംസ് ആശുപത്രി അങ്ങനത്തെ ആശുപത്രി ആദ്യമൊക്കെ എന്നുവെച്ചാൽ അത് പ്രൈവറ്റ് ആണ് നമുക്ക് ഒരുപാട് പൈസകളും കാര്യങ്ങളൊക്കെ കൊടുക്കണമായിരുന്നു പിന്നെ പിന്നെ നമുക്ക് അങ്ങനെ അധികം പൈസ ഒന്നും കൊടുക്കണ്ട ആ ഒരു അവസ്ഥ വന്നു നമുക്ക് അധികം പൈസ കൊടുക്കണ്ട ആ ഒരു ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതായത് ഇപ്പോൾ ആരോഗ്യം ഇൻഷുറൻസ് എന്നുപറഞ്ഞൊരു പ്രധാനമന്ത്രിയുടെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് വന്നതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് നമ്മുടെ പൈസ അഞ്ച് ലക്ഷം രൂപ അതിൽ ഉണ്ടാവും നമുക്ക് എന്തെങ്കിലും അസുഖം കാര്യങ്ങളുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അവരെ പൈസ എടുക്കും നമ്മുടെ കയ്യിൽ നിന്നും പൈസ കൊടുക്കേണ്ട അതൊക്കെ നമുക്ക് വലിയൊരു ഉപകാരാണ് പാവങ്ങൾക്ക് ഒക്കെ വലിയൊരു ഉപകാരമാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഒക്കെ കാണിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി തരുന്നത്